കോട്ടയം ജില്ലയിലാഘോഷിക്കുന്ന പ്രധാന ഉത്സവങ്ങളും പരിപാടികളും എതൊക്കെയാണെന്ന് വെച്ചാൽ ഞാനൊരു കോട്ടയംകാരനാണ് അപ്പം അതുകൊണ്ട് പറയുകയാണ് നമുക്ക് പ്രധാന ഉത്സവങ്ങളെപ്പറ്റി പറയുകയാണെ ഇപ്പം തിരുനക്കര അമ്പലത്തിലെ ഉത്സവം തിരുനക്കര പൂരം അത് ഇപ്പ ഒരു കുറച്ച് ദിവസം നീണ്ട് നിൽക്കുന്നൊരു വലിയൊരു കോട്ടയംകാരുടെ വലിയൊരു ആഘോഷമാണത് തിരുനക്കര ഉത്സവം എന്ന് പറയുമ്പം കോട്ടയംകാർ എല്ലാവരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് തിരുനക്കര അമ്പലം അവിടെ അല്ല തിരുനക്കര പൂരമെന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് ആനകൾ ഒന്നിക്കുന്നൊരു പൂരമാണ് തിരുനക്കര പൂരം കോട്ടയത്തെയെന്നല്ല കോട്ടയത്തെ ഒട്ട് മിക്ക ആൾക്കാരും വരികയാണ് പിന്നെ മറ്റ് ജില്ലയിൽ നിന്ന് വരുന്നവരും ഉണ്ട് എന്നാലും കോട്ടയം ജില്ലയിൽ നിന്ന് അധികമാൾക്കാരും വന്ന് പലയിടത്തു നിന്നുള്ള ആനകൾ ഇവിടെ വരികയും പ്രസ പ്രശസ് പ്രശസ്തമായ ആനകൾ വരികയും പൂരം നടത്തുകയും കുടമാറ്റം കുടമാറ്റമാണ് വളരെ എന്താ പറയുക വളരെ ഇതാണ് കുടമാറ്റം നല്ലതാണ് നല്ല ഭംഗിയാണ് കുടമാറ്റം ഓരോ രണ്ട് വിഭാഗക്കാരുടെയും കുടമാറ്റം കാണാം വളരെ തിരുനിക്കര ഉത്സവം വളരെ ഒരു നല്ലൊരു ഇതാണ് നമുക്ക് തരുന്നത് ആഘോഷകരമായിട്ടുള്ള തിരുനക്കര മൈതാനത്താണെങ്കിൽ നല്ല റൈഡുകളും ഗെയിംസും ചിന്തിക്കടകളെ അതുപോലെയുള്ള നല്ല അതുപോലെ തന്നെ അമ്പലത്തിലെ ആണെങ്കിൽ പരിപാടികൾക്ക് ഗാനമേള നാടകം അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് പിന്നീട് പറയുകയാണെങ്കിൽ പിന്നീട് ഏറ്റുമാനൂരമ്പലത്തിലെ ഉത്സവമാണ് പിന്നീട് പറയുകയാണെങ്കിൽ അവിടുത്തെ അവിടെയും ഇതുപോലെത്തന്നെ തിരുനക്കര പോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് അവിടുത്തെ ഏഴര പൊന്നാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് അത് കോട്ടയം ജില്ലയിലുള്ള ഒട്ട് മിക്ക ആൾക്കാരും തൊഴുന്ന സ്ഥലമാണ് ഏറ്റുമാനൂരമ്പലം അതുപോലെ തന്നെ നമ്മുടെ വൈക്കം വൈക്കത്തമ്പലമാണ് പിന്നീടെനിക്ക് പറയാനുള്ളത് വൈക്കത്തഷ്ടമി വൈക്കത്തഷ്ടമിയെന്ന് പറയുമ്പോൾ വളരെ ഐതിഹ്യങ്ങളൊക്കെയുള്ളൊരു ഉത്സവം ആഘോഷമാണ് വൈക്കത്തഷ്ടമി പിന്നെയുള്ളത് നമ്മുടെ മണ്ണാർക്കാട് പളളിലെ പെരുന്നാളുണ്ട് ഇതെല്ലാം വളരെ ഒരു ഒത്തുചേരലിൻ്റെ ഒരു ഭാഗം കൂടിയാണെന്ന് തന്നെ പറയാം മണ്ണാർക്കാട് പള്ളിയിലെ പെരുന്നാൾ പിന്നെ നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലെ പെരുന്നാളുണ്ട് ഇതെല്ലം വളരെ ഒരു എല്ലാവരും ഒത്തു ചേർന്ന് നല്ലൊരു ആഘോഷമായി ഉത്സവം ഉത്സവങ്ങൾ നല്ല ഭയങ്കര ആഘോഷമായ മതപരമായ അമ്പലമായാലും പള്ളിയായാലും മതപരമായി നന്ന് എല്ലാവരും ഭയങ്കര സൗഹൃദത്തോടെ ഒന്ന് ചേർന്ന് ഇന്ന് പള്ളിക്കാരുടെ പെരുന്നാളിന് പള്ളിക്കാർ തന്നെയല്ല എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും പങ്കെടുക്കാറുണ്ട് തിരുനക്കര പൂരം അതുപോലെ തന്നെയാണ് കോട്ടയത്തെ ഒരു ഉത്സവം പോലെയാണ് തിരുനക്കര ഉത്സവം കോട്ടയം ജില്ലയുടെ ഉത്സവം തിരുനക്കര പൂരം അതുപോലെ തന്നെയാണ് ഇനിയിപ്പപ്പം ആഘോഷങ്ങളുടെ പറയുകയാണെങ്കിൽ മതപരമായിട്ട് പ്രാദേശിക ദേശിയ അന്തർദേശീയപരമായിട്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും നമ്മൾ ഇവിടെ കാണാറുണ്ട് ഇപ്പം അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്